ഞങ്ങള്ക്ക് ചുറ്റുമുള്ള ആശുപത്രികളും ക്ലിനിക്കുകളും പണ്ടത്തേതിനെ അപേക്ഷിച്ച് പണ്ടത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് വളരെ മെച്ചമാണ് ആരോഗ്യ ആ രംഗമായാലും ആരോഗ്യരംഗത്ത് ആശുപത്രികൾ ഹെല്ത്ത് സെന്ററുകൾ ഒക്കെ വളരേ നല്ല രീതിയിലാണ് കേരളത്തില് പ്രവര്ത്തിച്ച് വരുന്നത് അത് ഞാനും ഹെല്ത്ത് സെന്റുകള് ഉപയോഗിക്കുന്നവരാണ് പ്രധാനമായിട്ടും വീട്ടിലാര്ക്ക് അസുഖം വന്നാലും സമീപത്തുള്ള ആരോഗ്യ കേന്ദ്രത്തില്ത്തന്നെയാണ് കൊണ്ടുപോവുന്നത് പ്രൈവറ്റായിട്ടുള്ള ആശുപത്രിയിലല്ല ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റമാണ് വന്നിരിക്കുന്നത് ശുചിത്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും ക്യു ഒക്കെ വളരെ കുറവാണ് ചിലവ് ചിലവ് അധികമായിട്ടില്ല എല്ലാ മരുന്നുകളും ലഭ്യമാണ് ഞങ്ങളുടെ സമീപത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ അതുപോലെ അവരുടെ സേവനവും വളരെ മികച്ചതാണ് എടുത്ത് പറയേണ്ട കാര്യം അവടുത്തെ വൃത്തി തന്നെയാണ് പണ്ട് സര്ക്കാർ ആശുപത്രികളിലും മറ്റും പോകാന് മടിച്ചിരുന്ന ആള്ക്കാർ ഇപ്പോൾ പോയിത്തുടങ്ങിയെന്ന് വേണം പറയാന് കുത്തിവയ്പ്പുകളും മറ്റും എടുക്കാനാണെങ്കിലും ആശുപത്രികൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലോട്ട് പോകുന്ന കാര്യം പേടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊതുമേഖല സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഇന്ന് എല്ലാവരും കൂടുതല്പ്പേരും ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ശുചിത്വത്തിന്റെ കാര്യത്തിലാണെ ങ്കിലും വളരെ മുന്നിലാണ് കേരളത്തിലെ ഈ ആരോഗ്യരംഗമെന്ന് ഉള്ളത്